ഗ്രാമപ്രദേശത്ത് മാനസികമായി ഉല്ലസിക്കുന്നതിനും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഈ പ്രദേശങ്ങളിലുണ്ട് നെയ്യാർ ഡാമിലും അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ എല്ലാം തന്നെ കളിക്കാനും ഇരിക്കാനും നിൽക്കാനും എല്ലാം ഉള്ള ഒരവസരം ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ പ്രയോജനപ്രദമായ രീതിയിൽ തന്നെ അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എല്ലാവരും അവിടെ പോയി സഹകരിക്കുകയാണ് എങ്കിൽ ഇങ്ങനെയുളള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കളിക്കാനും നടക്കാനും പോകേണ്ട സംവിധാനങ്ങളിലും ഏർപ്പെടാനായിട്ട് സാധിക്കും മാനസികമായി ഉല്ലസിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അതിന് വേണ്ടി പ്രയത്നിച്ച് പ്രയോഗിച്ചാൽ പിള്ളേർ കുട്ടികൾക്ക് അതിൻറേതായ മാനസിക ഉല്ലാസം കിട്ടും അതിന് വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ളതാണ്